ഞങ്ങളുടെ പ്രദേശത്ത് രണ്ട് ആശുപത്രികളും ഒരു സർക്കാർ ആരോഗ്യ കേന്ദ്രവുമാണ് ഉള്ളത് രണ്ടാശുപത്രികളും മെയിൻ റോട്ടിൽ തന്നെയാണ് നടന്നുപോവാം പറ്റുന്ന രീതിയിലാണ് നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഈ രണ്ടിനും ഉണ്ടാവുള്ളു പിന്നെ ആരോഗ്യ കേന്ദ്രം എന്നു പറയുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് പോകണം അത് പെട്ടെന്ന് നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാലും കുഴപ്പം ഇല്ല നമുക്ക് എങ്ങനേലും എത്തി എത്തിപ്പെടാവുന്ന പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷേ എപ്പോഴും അവിടെ തിരക്കാവാറുണ്ട്